ഹാലോ റെസ്റ്റോറൻ്റല്ലേ ഞാൻ അടുത്ത മാസത്തേക്ക് വേണ്ടി കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു അവിടെ എന്തെല്ലാം ഭക്ഷണങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് സ്വീറ്റ് ഐറ്റംസ് എന്തെല്ലാമുണ്ട് ഈ സ്വീറ്റ് ഐറ്റംസുകൾക്കും മെയിനായിട്ടുള്ള ഭക്ഷണങ്ങൾക്കും കൂടി എത്ര രൂപ വരും ഒരാൾക്ക് എത്ര വേണ്ടി വരും രണ്ടായിരം പേർക്ക് ഭക്ഷണത്തിന് എത്ര രൂപയാകും ഇതിന് എന്തെങ്കിലും ഓഫറുകളുണ്ടോ നിങ്ങൾ ഭക്ഷണം എങ്ങനെയാണ് ഋ റിസെപ്ഷനിൽ കൊണ്ടു വരുന്നത് നിങ്ങൾക്ക് റിസെപ്ഷനിൽ കൃത്യസമയത്ത് ഭക്ഷണം എത്തിക്കുവാൻ കഴിയുമോ